അതെ അതെ

ആ പറയൂ ആ ആ ആ നമ്മളിവിടെ ലൈനിങ്ങുള്ള ചുരിദാർ തന്നെ വിത്ത് ലൈനിംഗ് ആണെങ്കിൽ ഒരു അറുന്നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിംഗ് ആണെങ്കിൽ അഞ്ഞൂറ് ആ റേഞ്ചിലാണ് വരുന്നത് പിന്നെ നിങ്ങളുടെ തുണിയുടെ ഇത് അനുസരിച്ച് ആയിരിക്കും തുണി ഡിസൈൻ അതൊക്കെ നോക്കിയിട്ടായിരിക്കും ബാക്കി തീരുമാനിക്കുക ആ ആ അടിച്ചുതരും നിങ്ങൾക്ക് മോഡൽ ഏതാണെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചുതന്നാൽ മതി അതുപോലെ ചെയ്തുതരാം ആ ബ്ലൗസിനു ഇതുപോലെതന്നെ ലൈനിംഗ് ഉള്ളതിന് അഞ്ഞൂറും ലൈനിംഗ് ഇല്ലാത്തേന്ക്ക് മുന്നൂറ് രൂപയാണ് ആ കല്യാണം കല്യാണ വേണ്ടിയാണോ അതെ ആ ആ ആ വര്ക്ക് ചെയ്യുന്നത് നിങ്ങൾ ഏതാ മോഡല് എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്തുതരാം ആ കല്യാണ കല്യാണ ബ്ലൗസ് ആകുമ്പോൾ ഇച്ചിരി റേറ്റ് കൂടും കേട്ടോ

അത് എഴുന്നൂറ് എണ്ണൂറ് വരെ ഉണ്ടാവും ഇത് സാധനം കണ്ടാലേ പറയാന് പറ്റത്തുള്ളൂ ആ ആ ഇത് കണ്ണൂര് പ്ലാസക്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒക്കെ അടുത്തായിട്ട് ആ പെട്ടെന്ന് കൊണ്ടുവന്നാൽ വേഗം തീർത്തുതരാം

ആ ആ അത് നോക്കാം ശ്രമിക്കാം ഒരാഴ്ച് കൊണ്ട് തരാന് ശ്രമിക്കാം

ആ ആ ഓക്കെ ഓക്കെ ശരി ശരി താങ്ക്യു